മത്സ്യത്തൊഴിലാളികളുടെ ഉത്സവങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ അറിയില്ല കാരണം നമ്മുടെ അടുത്ത് അവർ താമസിക്കുന്നില്ല എന്നിരുന്നാലും ആർത്തുങ്കൽ ഭാഗത്തുള്ള ജനങ്ങൾ ഏറെയും മത്സ്യബന്ധനം നടത്തിയാണ് ജീവിക്കുന്നത് അവരുടെ പ്രധാന ഉത്സവം ആർത്തുങ്കൽപ്പള്ളി പെരുന്നാളാണ് ഞാനും അവിടെ പോയിട്ടുണ്ട് അവിടത്തെ ജനങ്ങൾ വളരെ ഒത്തൊരുമ ഒരുമയോടെയാണ് താമസിക്കുന്നത് സെൻറ്റ് ആൻഡ്രൂസ് ഫെറോണ പള്ളിയാണ് ആർത്തുങ്കൽ പ്പള്ളി എന്ന് പറയുന്നത് വിശുദ്ധസഭ ഇഗ്നോസ് പുണ്യാളനാണ് അവിടുത്തെ ദൈവം ഇദ്ദേഹത്തെ വെളുത്തച്ഛൻ എന്നു എല്ലാവരും പറയുന്നത് എല്ലാ വർഷവും ജനുവരി പത്തിന് ആരംഭിച്ച് ജനുവരി ഇരുവത്തിഏഴിനാ അവസാനിക്കുന്നു ജാതി മത ഭേദമന്യേ എല്ലാ മത്സ്യത്തൊഴിലാളികളും ഈ പെരുന്നാൾ ആഘോഷിക്കുന്നു വില്ലും കിടന്നും പ്രദക്ഷിണമാണ് ഇവിടുത്തെ പ്രധാന വഴിപാട് ഞങ്ങളും പിന്നെ വീടുകൾ തോറും

വീടുകൾ തോറും പിന്നെ അരി ഇതും പൈസായും തെണ്ടി കൊണ്ട് വന്ന് വെളുത്തച്ഛന് കാഴ്ച വയ്ക്കും